ഞാൻ ഓൺലൈനിൽ ഒരു വസ്ത്രം വാങ്ങിയാൽ അതിൻ്റെ ക്ലോത്തിങ് നല്ലതാണോ എന്ന് നോക്കും അതുപോലെ അതിൻ്റെ റേറ്റിങ് അടിപൊളിയാണോ എന്ന് അതായത് റേറ്റിങ് എങ്ങനെയാണ് കുറവാണോ റേറ്റിങ്ങിനൊത്ത ഇതാണോ എന്ന് നോക്കും അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സ്വാഭാവികമായിട്ടും വാങ്ങുന്നത് ഞാൻ ഏറ്റവും കൂടുതലും കടയിൽ നിന്നാണ് വാങ്ങുന്നത് അതായത് പരിസരത്തുള്ള കടകളിൽ നിന്നായിരുന്നു വാങ്ങുന്നത് എന്നാൽ ഓൺലൈനിൽനിന്ന് ഒരെണ്ണം വാങ്ങിയപ്പോൾ ഇതിന് ചെറിയ പൈസക്ക് കിട്ടിയതുകൊണ്ടാണ് ഇത് വാങ്ങിയത് എന്നാൽ ഇതിന് ഇത്രയും കുറഞ്ഞ പൈസക്ക് എനിക്കിത് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്നാൽ ഈ ഇത് വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല ക്ലോത്താണ് അതേപോലെത്തന്നെ ഇത്രയും കുറഞ്ഞ പൈസക്ക് ഇത്രയും നല്ല ക്ലോത്തിനി കിട്ടുകയില്ല എന്ന് മനസ്സിലായി ഈ ഈ ക്ലോത്തിലുള്ള തുണികൾ വേറെ ഉണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെത്തന്നെ ഇത് അടിപൊളി ക്ലോത്താണ് ഇത്രയും കുറഞ്ഞ പൈസക്ക് എങ്ങനെ ഇത്രയും നല്ല ക്ലോത്ത് കിട്ടിയതെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമായിട്ടുണ്ട് അത് അടിപൊളി ഉടുപ്പാണ് ഞാനിപ്പോൾ എപ്പോഴും പുറത്ത് പോയിട്ട് ഭയങ്കര വിലേൻ്റെ പൈസ ഭയങ്കര പൈസേൻ്റെ ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു എന്നാൽ ഇങ്ങനെ ഇത്രയും വിലക്കുറവിൽ ഒരെണ്ണം കിട്ടിയപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർഡറ് ചെയ്തു എന്നുള്ളൂ എന്നാൽ അത് അടിപൊളി ആയിരുന്നു ഞാനിതിൻ്റെ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ തന്നെ കൊടുക്കും